ഏതൊരു പെൺകുട്ടിയും അവൾക്ക് അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ആവശ്യമായ ഒരു ജോലി ലഭിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയിരിക്കണമെന്നാണ് ഞാനാഗ്രഹിക്കുന്നത് അതിന് പഠനത്തിന് എന്ത് പഠനം പൂർത്തിയാക്കിയെന്നുള്ളതല്ല അവൾക്ക് അവളുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ജോലി ലഭിക്കുന്നതിനാവശ്യമായ പഠനമെന്നത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ ഇന്ന് പണ്ടുകാലത്തെക്കാൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിയുന്നുണ്ട് പണ്ടുകാലത്ത് ആൺകുട്ടികൾക്ക് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസം പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസം മാത്രമല്ല പ്രാഥമിക വിദ്യാഭ്യാസം പോലും പണ്ടത്തെ കാലങ്ങളിൽ പെൺകുട്ടികൾക്ക് ലഭ്യമായിരുന്നില്ല എന്നാൽ കാലം മാറിയതിനനുസരിച്ച് ഇന്ന് പെൺകുട്ടികളും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടുന്നുണ്ട് നമ്മുടെ ഭരണഘടന തന്നെ സ്ത്രീ പുരുഷ സമത്വം വേണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമത്വം വേണമെങ്കിൽ സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള പഠനം നേടുകയും അതിനനുസരിച്ചുള്ള ജോലി നേടി അവർക്ക് പണം നേടാനും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റാനും സാധിക്കണം പണ്ടത്തെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടുകളില്ലെങ്കിലും ഇന്നും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് അത് പലപ്പോഴും പല കുടുംബങ്ങളുടെയും പ്രത്യേകതയാണ് ഇന്നും വിദ്യാഭ്യാസത്തിനായി സ്വന്തം ജില്ല വിട്ടു പോലും പലരും പെൺകുട്ടികളെ വിടാൻ തയ്യാറാകുന്നില്ല എന്നാൽ വിദേശത്ത് പഠനത്തിനായി പെൺകുട്ടികളെ അയയ്ക്കുന്ന ആളുകൾ വരെയുണ്ട് ഇത്തരത്തിലുള്ള വ്യത്യാസം പല കുടുംബങ്ങളിലുമാണ് നടക്കുന്നത് എന്നാലും ആൺകുട്ടികളുടെ അത്രയ്ക്ക് ഇന്നത്തെക്കാലത്ത് പെൺകുട്ടികൾക്ക് വിദേശ വിദ്യാഭ്യാസത്തിനായിട്ട് പോകാൻ സാധിക്കുന്നില്ല അതിനെല്ലാം ഒരു മാറ്റം വന്നുകഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ അവരുടെ കാലില് നിൽക്കാനും സ്ത്രീ പുരുഷ സമത്വം നേടിയെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസവും ലഭിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതൊരിക്കലും സ്കൂൾ വിദ്യാഭ്യാസമെന്നതിനെക്കാൾ അവരുടെ ഏത് ഏത് കഴിവുകളുമായിക്കോട്ടെ അത് ആർട്സോ മ്യൂസിക്കോ സ്പോർട്സോ എന്തുമായിക്കോട്ടെ അവർക്കവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇത്തരത്തിലുള്ള പഠനം സഹായിക്കും അത്തരത്തിലുള്ള പഠനവും വിദ്യാഭ്യാസ പഠനത്തിനെക്കാൾ സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്